ഞാൻ ഇടുക്കി ഈ റൂറൽ ഏരിയ സൈഡില് നിന്നാണ് ഞാൻ എൻ്റെ വീട് അപ്പം എനിക്ക് കുഴൽക്കിണറിനെപ്പറ്റി എനിക്ക് ഒരുപാട് പറയാൻ പറ്റും കാരണം പണ്ടത്തെക്കാലത്ത് ഈ പണ്ടത്തെക്കാലത്തല്ല ഇപ്പോഴും ഈ കുഴൽക്കിണര് കുഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് താഴെ പാറക്കല്ലാണെന്ന് അറിയുമ്പോള് നമുക്ക് സാധാ കിണര് കൊണ്ടുപോയി കുഴിച്ചിട്ട് കാര്യമില്ല നമുക്കിപ്പോള് കുഴൽക്കിണര് തന്നെ നമുക്ക് കുഴിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോള് നേരത്തെയൊക്കെയെന്ന് പറയുമ്പോള് അത് ഭയങ്കരം ബുദ്ധിമുട്ടായിരുന്നു കുഴൽക്കിണര് അത് കുഴിച്ച് കഴിയുമ്പോള് അത് നമ്മള് കൈകൊണ്ട് നമ്മള് ഇത് എന്താണ് പറയുന്നത് റോപ്പിട്ടിട്ടാണ് നമ്മളത് വലിച്ചെടുക്കേണ്ട ഒരിതാണ് വരുന്നത് കയറിട്ടിട്ട് നമ്മള് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെക്കാലത്ത് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല കാരണം അതിന് മോട്ടർ സംവിധാനങ്ങളൊക്കെ ഇപ്പം ഉപയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി നമ്മളെടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കിതിന് വരുന്നില്ല മോട്ടർ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് ഇത് വെയ്ക്കുകയാണെങ്കില് പിന്നെ അല്ലാതെ നേരത്തെയുള്ള ഇത് വെച്ച് നോക്കുകയാണെങ്കില് പദ്ധതികൾ ഒരുപാടുണ്ടായിരുന്നു അതായത് നേരത്തെയാണെങ്കില് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ എന്തോ കിണറിൻ്റെ പദ്ധതിയുണ്ട് പിന്നെ ജലനിധി പദ്ധതിയുണ്ടായിരുന്നു നേരത്തെ പിന്നെ ഇപ്പോള് റീസൻറ്ലി ആയിട്ട് മോദിയുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു പദ്ധതി ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു അതായിരിക്കും അതുതന്നെ അത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇപ്പോള് റീസൻറ്ലി വന്ന ഒരു ടാപ്പും അങ്ങനെയുള്ള സംഭവങ്ങളും വെച്ചിട്ടുണ്ട് എല്ലാ ഏരിയായിലും അവര് കവര് ചെയ്ത് അവര് കണക്ഷൻ കൊടുത്തുവരികയാണ് എനിക്ക് തോന്നുന്നു ഒരു ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് അത് വരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവര് ചെയ്യുന്നുണ്ട് ഇതൊക്കെയെന്ന് പറയുമ്പോള് ചെയ്യുമ്പോള് ഇവിടെ റൂറൽ ഏരിയയില് താമസിക്കുന്ന ഇടുക്കി വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് മാതിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് കാരണം വളരെ ബുദ്ധിമുട്ടി അവർക്ക് വെള്ളം കിട്ടാതെ വരുമ്പോള് മാസത്തിൽ എനിക്ക് തോന്നുന്നു നൂറ്റിയമ്പത് രൂപ കൊടുത്ത് അവര് എനിക്ക് തോന്നുന്നു ഓരോ ഇത്രയും ആൾക്കാര് അതായത് ഇപ്പോള് ഒരു പത്ത് മെമ്പര് അല്ലെങ്കില് പത്ത് ആൾക്കാരുടെ വീടിന് ഇത്രയും വെള്ളം അടിച്ചുകൊടുക്കുന്ന സംഭവമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അതിന് എനിക്ക് തോന്നുന്നത് മാസം നൂറ്റിയമ്പത് രൂപ വെച്ച് അവര് ചെയ്യുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു അര മണിക്കൂറാണ് ആ വെള്ളം പിടിക്കാൻ പറ്റുന്നത് അത് നമുക്ക് അത്രയും നമുക്ക് നമ്മുടെ ദിവസത്തിനുള്ള ഒരിത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും മാത്രമാണ് ആ വെള്ള പദ്ധതി വരുന്നത് അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അതുകൂടാതെ ഈ കുഴൽക്കിണറുള്ള ആൾക്കാരാണ് അല്ലെങ്കില് സാധാ വെള്ളമുള്ള കിണറുള്ള ആൾക്കാർക്കാണെങ്കില് അങ്ങനെയൊരു പ്രശ്നം വരുന്നില്ല അവർക്ക് അതില്നിന്ന് മോട്ടർ വെച്ചിട്ടാണെങ്കിലും വെള്ളം അവർക്ക് ഉപയോഗിക്കാം ഇതില്ലാത്തവർക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് സ്കീംസ് ഒരുപാട് അവര് കൊണ്ടുവരുന്നുണ്ട് അത് വിത്തിൻ ഈയൊരു വർഷം കൊണ്ട് അത് നമ്മുടെ ഒരു ഇത് പിന്നെ ജലനിധിയുടെ പഴയ ജലനിധിയുടെ ഒരുപാട് സ്കീംസ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കീം എനിക്ക് തോന്നുന്നു അതിപ്പോഴും കുറച്ചിടത്തൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പം അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്